തീർച്ചയായും പാട്ടെന്ന് പറയുന്നത് അതൊരു ഒരു ഘടകമാണ് നമുക്കെന്താ പറയുക നമ്മുടെ ഒരു ഇഷ്ടമല്ലേ അതിന് നമുക്കൊരു മറ്റു ഘടകങ്ങളുടെ കൂടെ കൊണ്ട് പോകാനെന്ത് ബുദ്ധിമുട്ടാണുള്ളത് പറയുകയാണെങ്കിൽ പാട്ടെന്ന് പറയുന്നത് ഏ ഏറ്റവും നമ്മൾക്കിപ്പം ഒരു ഒരു എന്താണ് വളരെ ബുദ്ധിമുട്ട് മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നൊരു സമയം ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ നമുക്കതെന്തോരം സമാധാനമാണ് തരുന്നത് അതുപോലെത്തന്നെ നമ്മൾ മനസ്സിന് മനസ്സ് റിലാക്സാവാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണീ പാട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പാട്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോഴും മൂളിപ്പാട്ട് പാടുമ്പോൾ നമ്മുടെ എന്തോരം സ്ട്രെസ് കുറയും എന്തോരം നമ്മളെത്ര ഹാപ്പിയാവും അപ്പം അതുപോലെതന്നെയൊരു പാട്ട് കേൾക്കുമ്പോൾ ഒരാൾ പാടുന്നത് കാണുമ്പോൾ താളം പിടിക്കുമ്പോൾ കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മൾ മറ്റ് പലതും മറന്ന് പാട്ടാസ്വദിക്കാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത് അത് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന സമയം മറ്റൊന്ന് ശരിയാണ് പക്ഷേ ഒരു പാട്ടാസ്വദിക്കാൻ അതൊന്നുമൊരു ഘടകം അല്ലെങ്കിലൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ല ഇതൊരു പ്രശ്നമായിട്ട് വരുന്നില്ല അതുപോലെത്തന്നെ പാട്ട് നമുക്ക് കൊണ്ടുപോവാൻ പറ്റും പാട്ട് നമുക്കെപ്പോൾ വേണമെങ്കിലും കേൾക്കാം എപ്പോൾ വേണമെങ്കിലും പാടാം ഇപ്പോൾ പോലും വേണമെങ്കിൽ എനിക്കൊരു മൂളിപ്പാട്ട് പാടുന്നതിനെന്ത് പ്രശ്നമാ ഉള്ളത് അല്ലയോ അതിനൊന്നും പ്രശ്നമൊന്നുമില്ല മറ്റു ഘടങ്ങളൊരു ഘടകം അല്ല അതൊന്ന് അതൊക്കെ നമ്മുടെ ജീവിതത്തില് നടന്ന് പോവുന്ന ജോലിയാകട്ടെ ജോലി ചെയ്ത് സമയത്തിന് ജോലിയാകട്ടെ പഠിക്കുന്ന സമയത്ത് പഠനമായിക്കോട്ടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് തലയിൽ കയറാതെ ഒന്നും മനസ്സിലാവാതിരിക്കുന്ന സമയത്താണെങ്കിൽപ്പോലും രണ്ട് വരി മൂളിപ്പാട്ട് പാടുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു സമാധാനം അത് നമ്മൾ വിദ്യാർത്ഥികൾക്കേ അത് പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കത് ഭയങ്കര ഒരു മൂളിപ്പാട്ട് പാടുമ്പോൾ അല്ലെങ്കിലൊരു പാട്ട് കേക്കുമ്പം നമുക്കുണ്ടാവുന്ന ഒരു നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് സ്റ്റേജിലേക്ക് നമ്മൾ പോവും അതുപോലെത്തന്നെ എന്താ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് പാട്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊത്തിരി റിലാക്സാവും അതുകൊണ്ട് അതൊരു ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല പാട്ടെന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് നമ്മളൊരു ഒരു ദിവസമൊരു പാട്ട് പോലും കേൾക്കാത്ത ഏതെങ്കിലും മനുഷ്യർ മൂളിപ്പാട്ട് പോലും പാടാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടാവുമോ എനിക്ക് തോന്നില്ല അങ്ങനൊന്നുമുണ്ടാവില്ല അതുകൊണ്ടുതന്നെ പാട്ടെന്ന് പറയുന്നത് ഒരു മറ്റുള്ള മറ്റുള്ള ജോലി അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിലൊരു ബുദ്ധിമുട്ടായിട്ടെനിക്ക് തോന്നുന്ന ഒന്നല്ല പാട്ട് എന്ന് പറഞ്ഞേക്കുകയാണ്